ആ ചേട്ടാ വരൂ നമസ്കാരം ആ നമുക്കിപ്പോൾ സാധാരണ ഒരു വരണ രീതിയിലെന്നു പറയുമ്പോൾ വാടാമല്ലിയുണ്ട് ജമന്തിയുണ്ട് അരളിയുണ്ട് എല്ലാ എങ്ങനെയാണ് ഇപ്പോൾ ചെണ്ടുമല്ലിയുണ്ടല്ലോ ഏതാ വേണ്ടത് മഞ്ഞയുണ്ട് ആ ഓറഞ്ചും ഉണ്ട് മഞ്ഞയുമുണ്ട് അതിലേതാ വേണ്ടത് ഓറഞ്ച് എത്ര വേണ്ടി വരും പന്ത്രണ്ടു കിലോ ഓക്കെ വാടാമല്ലിയുണ്ട് ആ ഇതിപ്പോൾ കൊണ്ടു പോകാനാണോ അതോ ചേട്ടന് ഓർഡർ തന്നിട്ടു പോകാനാണോ എങ്ങനെയാണ് ആ ഓക്കെ ശരി അപ്പോൾ ഞാൻ ഞാനൊരു മിനിറ്റ് ഒരു ബുക്കും പേനയും എടുക്കട്ടേ ആ പറഞ്ഞോ ചേട്ടാ ചെണ്ടുമല്ലി എത്രയാ വേണ്ടത് പന്ത്രണ്ടു കിലോ അല്ലേ ഓറഞ്ച് മഞ്ഞ എത്രയാ വേണ്ടത് മഞ്ഞ ചെണ്ടുമല്ലി അഞ്ചു കിലോ ജമന്തി വേണോ വെള്ള അതെത്രയാ വേണ്ടത് പത്തു കിലോ ആ വാടാമല്ലി വാടാമല്ലി എത്ര കിലോയാ വേണ്ടത് പത്തു കിലോ ഇനി നമുക്ക് അരളിയുണ്ട് പിന്നെ റോസ് വന്നിട്ട് രണ്ടു കളറിൽ വരുന്നുണ്ട് മഞ്ഞയും വരുന്നുണ്ട് റോസും വരുന്നുണ്ട് ചെറിയത് പിന്നെ വലിയ റോസുണ്ട് ആ അതെ അതൊക്കെ വേണോ ആ ഓക്കെ അതെത്രയാ വേണ്ടത് പത്തു കിലോയോ ഓക്കെ പിന്നെ വേറെ മറ്റേ ഇത് നമ്മുടെ അരളിയെന്താ എത്രയാ വേണ്ടത് അരളി രണ്ടു കളറിൽ വരുന്നുണ്ട് കേട്ടോ വെള്ളയും വരുന്നുണ്ട് റോസും വരുന്നുണ്ട്

റോസെടുക്കാം അല്ലേ റോസെത്രയാ വേണ്ടത് അതെയോ ആ മറ്റേ നമ്മുടെ റോ ആ അതെത്രയാ വേണ്ടത് പത്തു കിലോ അല്ലേ ആ ഓക്കെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് അതായത് മൊത്തമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വില കമ്മിയാക്കിത്തരാം നിങ്ങൾക്ക് എന്നൊക്കെയാണിത് വേണ്ടത് നാളേക്ക് അല്ലേ ഓക്കെ നാളെ രാവിലെ വരുമോ അതോ വൈകുന്നേരം വരുമോ എപ്പോഴാ വരുക വൈകുന്നേരത്തേക്ക് വൈകുന്നേരത്ത് ഒരു അഞ്ചുമണിയാകുമ്പഴേക്കും എത്തുമോ ആ ഓക്കെ പിന്നെ വേറെ ഏതെങ്കിലും വേണോ ഇനി റോസ് വലിയ റോസ് വേണോ വലിയ റോസിന് നമ്മളിപ്പോൾ പീസ് റേറ്റ് ആണ് വരുന്നത് അതിനൊരു പീസിന് എട്ടു രൂപ വരുന്നുണ്ട്

ആ ഓക്കെ താമര അങ്ങനെ എന്തെങ്കിലും വേണോ സെൻററിൽ വെക്കാനായിട്ട് നമ്മള് പൂക്കളത്തിനൊക്കെ സാധാരണ ഇപ്പോൾ കൊണ്ടു പോകുന്നുണ്ട് ആ ഓക്കെ വേറെ ഏതെങ്കിലും വേണോ ഇതെങ്ങനെയാ പാക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്കെന്നാ എന്നേയ്ക്ക് ഉപയോഗിക്കാനാ മറ്റന്നാളേക്കാണോ അതോ ആ ഓക്കെ അല്ല നമ്മള് പാക്കിങ്ങിൻ്റെയാ ഇപ്പോൾ രണ്ടു ദിവസത്തേക്കാണെന്നു പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പാക്ക് ചെയ്തു വെയ്ക്കാമെന്നു പറഞ്ഞിട്ടാ ഇപ്പോൾ നാളെ മറ്റന്നാളേക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മള് ജസ്റ്റ് കവറില് മിക്സാക്കി പാക്ക് ചെയ്യണോ അതോ ഓരോന്നോരോന്നു സെറ്റ് സെറ്റ് പാക്ക് ചെയ്യണോ സെറ്റ് സെറ്റായിട്ട് പാക്ക് ചെയ്യാം അല്ലേ ആ ഓക്കെ അപ്പോൾ നാളെ വൈകുന്നേരം വന്നാൽ മതി ഇപ്പോൾ അഡ്വാൻസ് എന്തെങ്കിലും കൊണ്ടു വന്നിട്ടുണ്ടോ ഇതിപ്പോൾ എല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു എട്ട് എട്ട് ഏഴുന്നൂറ്റമ്പത് വരും നമുക്ക് ഡിസ്കൗണ്ട് എല്ലാം കമ്മിയാക്കിയിട്ടൊരു ഏഴ് അറുന്നൂറു തന്നാൽ മതി ആ ഓക്കെ പിന്നെയിത് വെക്കുമ്പഴേ നാളെ വൈകുന്നേരം ഇപ്പോൾ കൊണ്ടുപോയിട്ട് നമ്മള് വെക്കണ സമയത്ത് ഒന്ന് കവറഴിച്ചിട്ടു ലേശം വെള്ളമൊക്കെ തളിച്ചിട്ടു വെക്കണേ അതായത് ഒരുപാട് വെള്ളമല്ല കുറച്ചു വെള്ളമൊന്നു തളിച്ചു വെച്ചു കഴിഞ്ഞാൽ കേടുവരില്ല അല്ലെങ്കിൽ പിന്നെ നമ്മള് ഈ ഫ്രിഡ്ജില് ഫ്രിഡ്ജ് ആ വേണ്ട അങ്ങനെ വെച്ചാൽ മതി ഓപ്പണായിട്ട് വെച്ചാൽ മതി ഒന്നഴിച്ചിട്ടേ ഓക്കെ അപ്പോൾ നാളെ നിങ്ങള് വൈകുന്നേരം അഞ്ചു മണിക്ക് എത്തുമല്ലോ അല്ലേ ആ ഓക്കെ അപ്പോൾ നമ്മള് നാളെ അഞ്ചു മണിയാകുമ്പോഴേക്കും സെറ്റ് ചെയ്തു വെയ്ക്കാം കേട്ടോ ഓക്കെ താങ്ക് യൂ